നിങ്ങള്ക്ക് വല്ല ട്രഡീഷൻസുമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് അങ്ങനെ പ്രത്യേകിച്ച് ട്രഡീഷൻസൊന്നും എനിക്കില്ല പിന്നെ നമ്മള് ജീവിക്കുന്ന സമൂഹത്തില് നമ്മളിരിക്കുന്ന കമ്മ്യൂണിറ്റിയില് ചില ട്രഡീഷൻസൊക്കെയുണ്ട് അത് ഫോളോ ചെയ്യാറുമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോള് പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് ഇങ്ങനെ അമ്പത് നോമ്പിൽ അമ്പത് ദിവസവും നോമ്പെടുക്കണം അങ്ങനെ ആചാരങ്ങളുണ്ട് ഇന്ന ദിവസം ഉപവാസം നോല്ക്കണം ഈ ഇന്ന ഇന്ന ഫുഡേ കഴിക്കാവൂ ഇത് കഴിക്കില്ല മാംസം വർജിക്കണം അങ്ങനെയുള്ള ട്രഡീഷൻസൊക്കെ പാരമ്പര്യങ്ങളല്ലെ അതായത് പരമ്പരാഗതമായിട്ട് തലമുറ തലമുറയായിട്ട് കൈമാറി വന്ന ചില ട്രഡീഷൻസിനെ ഇപ്പോഴും ഫോളോ ചെയ്തുപോകാറുണ്ട് അത്രയെയുള്ളൂ പിന്നെ വിശ്വാസം അന്ധവിശ്വാസങ്ങളുണ്ടോയെന്ന് ചോദിച്ചാല് അങ്ങനെയില്ല പക്ഷേ ചിലപ്പോള് ചിന്തിച്ചുപോകാറുണ്ട് ഇപ്പം എങ്ങോട്ടെങ്കിലും പോകാനിറങ്ങുമ്പോള് പൂച്ച വിലങ്ങനെ ചാടുക അല്ലെങ്കില് പല്ലി ചിലയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് വിശ്വസിച്ചിട്ടുണ്ട് എന്നുവെച്ചാല് അന്ധമായി വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാല് ഇല്ല